നമ്മൾ സ്വയം നിർമ്മിക്കുന്ന വസ്ത്രത്തിൻ്റെ പാറ്റേണ് നമ്മൾ സ്വയം കണ്ടേത്തുന്നതും ഈ കാലഘട്ടത്തിൽ ഇൻറ്റർനെറ്റിൻ്റെ ഉപയോഗംകൊണ്ട് അതല്ല ഓൺലൈൻ മാധ്യമ മാധ്യമങ്ങളിലുടെ അതായത് യൂട്യൂബ് അങ്ങനെയുള്ള

അതിന് നമ്മൾ ഒരുപാട് യൂട്യൂബ് പോലുള്ള ഇത് നമ്മളെ സഹായിക്കാറുണ്ട് പിന്നീട് നമ്മുടെ സുഹൃത്തകൾ നമ്മളുടെ കോളീക്സ് അങ്ങനെ ഒരുപാട് പേർ നമ്മളുടെ വസ്ത്രങ്ങൾ നിർമ്മിക്കുന്നതിന് അല്ലാതെ തയ്ക്കുന്നതിന് നമ്മൾക്ക് സഹായം ചെയ്തുതരാം ഉപദേശങ്ങളും അവരുടെ എന്താ ഉപദേശങ്ങൾ അല്ല അവരുടെ ഒപ്പീനിയന് നമ്മൾ സ്വീകരിക്കാറുണ്ട് ഓരോരോ മോഡലുകൾ കാണുമ്പോളും അതിൽ നമ്മൾ ന്നാ അതേ രീതീൽ നമ്മൾ ആ പാറ്റേൺ ഉണ്ടാകാൻ ശ്രമിക്കാറുണ്ട് ഇഷ്ടപ്പെട്ട ബ്രാൻഡുകളൊരുപാട് ബ്രാൻഡുകൾ നമ്മൾ ഉപയോഗിക്കാറുണ്ട് സ്ഥിരം അങ്ങനെ ഇന്നത് എന്നൊന്നും ഇല്ല നല്ലത് കാണുന്നത് ഏത് ബ്രാൻഡുകളാന്ന് നമ്മൾ വാങ്ങി ഉപയോഗിക്കാറുണ്ട് ഓൺലൈനിൽനിന്നാണെങ്കിലും നമ്മൾ വസ്ത്രങ്ങളൊക്കെ ഓഡ്ര് ചെയ്ത് ഞാൻ ഉപയോഗിക്കുന്നു നല്ല നല്ല മീഷോ അങ്ങനെ നല്ല നല്ല നല്ല പാറ്റേണുകളുള്ള വസ്ത്രങ്ങൾ കാണുമ്പം അത് നമുക്കിഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മളത് വാങ്ങിച്ച് ഉപയോഗിക്കുന്നതിന് പരമാവധി ശ്രമിക്കാറുണ്ട് നമ്മൾ മാധ്യമങ്ങൾ എല്ലായിടത്തും കാണുന്ന ഇഷ്ടപ്പെട്ട പാറ്റേണുകളും അതെല്ലാം നമ്മൾ ശേഖരിച്ച് അതിൽ നിന്നൊക്കെ കാണുന്ന രീതിയിൽ തന്നെ നമ്മൾ വസ്ത്രത്തിൻ്റെ ഡിസൈനും പാറ്റേണൊക്കെ നോക്കാറുണ്ട് ഡിസൈനൊക്കെ ചെയ്യുന്നതിന് സുഹ്യത്തുക്കളുടെ സഹായവും അതുപോലെ നമ്മുടെ കൊളീക്സിൻ്റെ പേരൻ ഒക്കെ സഹായം നമ്മൾക്ക് ഒരുപാട് ലഭിക്കാറുണ്ട് നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ സഹായങ്ങളൊക്കെ ലഭിക്കാറുണ്ട് ഡിസൈൻസ് ഒക്കെ ചെയ്യുമ്പോളത്തിന് അവരുടെ അഭിപ്രായങ്ങൾ നമ്മൾ മാനിച്ചിട്ടാണ് നമ്മൾ നമ്മുടെ ഡിസൈൻസ് പാറ്റേണൊക്കെ ചെയ്യിക്കുന്നത് നമ്മൾ സ്വാഭാവികമായിട്ടും ഉള്ള ക്രിയേറ്റിവിറ്റി കൂടാതെ മറ്റുള്ളവരുടെ ഉപദേശങ്ങളും അവരുടെ അറിവുകളും നമ്മൾ ചേർത്ത് വെക്കാറുണ്ട് അതിൽ കൂടിയൊക്കെയാണ് നമ്മൾ നമ്മളുടെ വസ്ത്രങ്ങൾ നിർമ്മിക്കുന്നത് ഡിസൈൻ ചെയ്യുന്നതും അതിൻ്റെ പാറ്റേൺ തീരുമാനിക്കുന്നതൊക്കെ പുറത്ത് കാണുന്നതും ആയിട്ടുള്ള എല്ലാ ഡിസൈനുകും നമ്മൾ നോക്കി വയ്ക്കാറുണ്ട് അതിൽ നോക്കി നമ്മൾ ഓരോ കാര്യം കൊണ്ട് നമ്മൾ നമ്മളുടേതായ രീതിയിൽ നമ്മളുടേതായ രീതിയിലുള്ള ഡിസൈൻ ചെയ്ത് നമ്മളതൊരു വസ്ത്രം ആക്കി മാറ്റും എല്ലായിടത്തുംനിന്നുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ നോക്കിക്കണ്ട് മനസ്സിലാക്കി നമ്മൾ നമ്മളുടേതായ ക്രിയേറ്റിവിറ്റി ഉപയോഗിച്ച് വസ്ത്രങ്ങൾ നല്ല രീതിയിൽ അതിൻ്റെ പാറ്റേണും ഡിസൈനും നല്ല രീതിയിൽ നോക്കി നിർമ്മിക്കാനായിട്ട് നമ്മൾ നോക്കും